അടുക്കളയില് എല്ലാ വ്യത്യസ്തതരത്തിലുള്ള പാത്രങ്ങളും അടുക്കള സാമഗ്രികളും നമ്മള് ഉപയോഗിക്കാറുണ്ട് മൺചട്ടി സ്റ്റീല് അലൂമിനിയം നോൺ സ്റ്റിക്ക് തുടങ്ങിയ എല്ലാ പാത്രങ്ങളും ഉപയോഗിക്കാറുണ്ട് ആ നോൺ സ്റ്റിക്കാകുമ്പോൾ നമ്മുടെ മീന് ഫ്രൈ ചെയ്യാൻ ചിക്കൻ അതൊക്കെ ഫ്രൈ ചെയ്യാനൊക്കെ നമ്മള് നോൺ സ്റ്റിക്ക് പാത്രം തന്നെയാണ് ഉപയോഗിക്കാറ് അടിക്ക് പിടിക്കുന്നതൊക്കെ ഒഴിവാക്കാൻ നമ്മള് കൂടുതലും നോൺ സ്റ്റിക്ക് തന്നെയാണ് ഉപയോഗിക്കാറ് ചോറ് വെക്കുന്നത് അലുമിനിയം പാത്രത്തിലാണ് പിന്നേയുള്ള ബാക്കി കറികളൊക്കെ വെക്കുന്നത് മൺചട്ടീ തന്നെയാണ് മീന് അതൊക്കെ ചിക്കനായാലും വെക്കുമ്പം മൺചട്ടീ തന്നെ വെക്കാറുണ്ട് പിന്നെ അടുക്കളേല് ബാക്കി അടുക്കള സാമഗ്രികള് നമ്മള് അടുക്കള ജോലി എളുപ്പമാക്കാനുള്ള മിക്കതും ഉപയോഗിക്കാറുണ്ട് മിക്സി ഗ്രൈൻഡറ് ചോപ്പറ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്